ഇപ്പോള് നമ്മുടെ സ്ഥലകൾലെ കലകളും അതുപോലെ കരകൗശല വസ്തുക്കളൊക്കെ ഒരുപാട് സിനിമകളിലും അല്ലങ്കിൽ പരസ്യങ്ങളിലോ മറ്റ് ഫാഷൻ ഷോകളിലോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോള് ഒരുപാട് ഉദാഹരണങ്ങൾ പല സിനിമകളിലായിട്ട് കാവ്യാ മാധവന്റെ പല സിനിമകളിലുമൊക്കെ കരകൗശല വസ്തുക്കളുണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ തനതായ സൃഷ്ടികള് തന്നെയാണ് അതുപോലെ ചിരട്ട വച്ച് ഉണ്ടാക്കുന്ന വസ്തുക്കള് വാഴയുടെ തണ്ട് വച്ചുണ്ടാക്കുന്നത് അങ്ങനെ ഒട്ടനവധി വസ്തുക്കൾ ഇപ്പോള് ചില സിനിമകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് ചിരട്ട വച്ചിട്ട് ഷേയ്പ്പുണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്കൾപ്ച്ചേഴ്സ് ചെയ്യുന്നത് അങ്ങനെ കരകൗശല വസ്തുക്കള് കൂടുതലായിട്ട് നമ്മുടെ സ്ഥലങ്ങളിലെ അല്ലെങ്കില് നമ്മുടെ കലകളില് ഇൻസ്പയറായിട്ടുള്ളതാണ് പിന്നെ പല സിനിമകളിലും നമ്മുടെ കലകളുടെ ഇതും യൂസെയ്തിട്ടുണ്ട് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള കരകൗശല വസ്തുക്കളും അതിന്റെ തനതായ കലാസൃഷ്ടികളും പല സിനിമകളിലും ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാഷൻ ഷോയിലാണെങ്കിലും നമ്മുടെ യുവതലമുറയുടെ നിരവധി ഡ്രെസ്സിങ് സെൻസുകള് അല്ലെങ്കിൽ അവര് ചെയ്ത വസ്തുക്കള് അവര് ചെയ്യുന്ന ഡ്രെസ്സസ് നമ്മുടെ യുവതലമുറയുടെ ഫാഷൻ സെൻസുകള് പിന്നെ അവര് ഫാഷൻ ഷോകളില് ഉപയോഗിക്കുന്ന നമ്മുടെ ഇവിടെ ഉള്ള കരകൗശല വസ്തുക്കളെ വച്ചു തന്നെ ഫാഷൻ ഷോകള് ചെയ്യുന്നവരുണ്ട് അതായത് നമ്മള് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ സ്ഥലത്തുള്ള സാധനങ്ങള് വച്ചിട്ട് പല ഫാഷൻ ഷോകളിലും നമ്മള് കാണാറുണ്ട് പല രീതിയിലുള്ള വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് ഇതൊക്കെ യുവ തരം തലമുറയുടെ ഫാഷൻ സെന്സുകളാണ് അതുപോലെ സിനിമകളിലും മറ്റു പരസ്യങ്ങളിലുമൊക്കെ നമ്മടെ ഈ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമ്മളുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പരസ്യങ്ങളും അതുപോലെ സിനിമകളുമൊക്കെ ചെയ്തിട്ടുണ്ട് പല സിനിമകളിലും ഇതെടുത്ത് കാണിക്കുന്നുമുണ്ട്